ഹലോ റോയൽ പാലസ് ആ ആ ആ ആ ആ ട്രഡീഷണൽ ഫുഡ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ കപ്പയും ബീഫും കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ പുട്ട് ബിരിയാണി ബക്കറ്റ് ബിരിയാണി ഇങ്ങനത്തെ ഒക്കെ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ആ റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ട് ദിവസം അല്ലേ

ഓ നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം

ആ ആ നമ്മൾ അത് നോക്കിയിട്ട് അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്ത് തരാം കേട്ടോ അത് നമുക്ക് ഒരാൾക്ക് വേണ്ടി വരുന്ന ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് രൂപയാണ് മിനിമം ഒരു അമ്പത് പേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഏഴുപത്തഞ്ച് രൂപയുടെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തരാം

ആ ആ അപ്പോൾ ടാക്സി എന്തെങ്കിലും ആ ആ ആ അത് ചെയ്ത് തരാം വിളിച്ചാൽ മതി കേട്ടോ ബുക്കിംഗ് എമൗണ്ട് ടാക്സിയുടെ ഒരു ചെറുതായിട്ട് ഒരു ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എഴുനൂറ് രൂപയോ ആയിരം രൂപയോ ചെയ്താൽ മതി ഒരു കൺഫോമേഷൻ എന്ന രീതിയിലാണേ

ആ ഓക്കെ ഓ തീർച്ചയായും